നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഗതാഗതം അത് നമ്മുടെ നാട്ടിൽ തന്നെ ഭയങ്കര രീതിയിലുള്ള കുണ്ടും കുഴികളും കട്ടറുകളുമാണ് അത് നമ്മൾ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് മഴ സമയത്താണ് മഴ മഴ സമയങ്ങളിൽ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോഴേക്കും അത് പിന്നെ കുളമാണോ തോടാണോ റോഡാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനും കഴിയില്ല അങ്ങനെയൊരവസ്ഥയാണ് നമ് ഇത്രയും കട്ടറുകളിൽ കൂടിയാണ് ഞങ്ങൾ പിന്നെ ഇപ്പം ഗർഭിണികളെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് പോകുമ്പോൾ അവർ ധാരാളം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു ഈ കട്ട റോഡുകളിൽ കൂടെ ഇത് നമ്മുടെ പിന്നെ നാട്ടിൽ ഗതാഗതം ഗതാഗതം ആയിട്ട് ബന്ധപ്പെട്ട് റോഡുകൾ വളരെ ബുദ്ധിമുട്ടിലാണ് അത് ആരും ഒരു മന്ത്രിമാരാരും ഒരു നമുക്ക് ഒരു രീതിയിലുള്ള നേട്ടങ്ങളും ഉണ്ടാക്കി തരുന്നില്ല അത് അപേക്ഷിച്ച് സിറ്റിയിലൊക്കെ പോകുമ്പോൾ നല്ല ഹൈവേ റോഡുകളാണ് കെട്ടിയിട്ടേക്കുന്നത് പക്ഷേ അവിടെ പോവുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ വണ്ടികളുടെ തിക്കും തിരക്കും പുകയും എല്ലാം നമുക്ക് അത് മ മലിനീകരണമുണ്ടാക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഹോണുകളുടെ ശബ്ദം നമുക്ക് ഉണ്ടാക്കുകയും ഭയങ്കര നമുക്ക് സിറ്റിയിലോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ട് ഏറിയതും നമ്മുടെ കൊച്ച് കൊച്ച് ഈ നാട് നാട്ടിൻ പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള കഷ്ടപ്പാടുകളാണ് നമ്മൾ അനുഭവിച്ച് കൊണ്ടിരിക്കുന്നത്